പണ്ട് എടുത്ത കുറേ ഫോട്ടോസ് ഉണ്ട് എന്റെ കുഞ്ഞിലത്തെ കുറേ ഫോട്ടോസ് എൻ്റെ പേരന്റ്സ് അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പം പ്രിന്റായിട്ടും പിന്നെ ആല്ബങ്ങളിലും പിന്നെന്താ ഫ്രെയിം ആയിട്ടൊക്കെ ഇപ്പം വീട്ടിൽ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് അതു കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് കുഞ്ഞിലത്തെ ഞാന് എങ്ങനെ ആയിരുന്നുവെന്ന് എനിക്ക് ഇപ്പോൾ അതു കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കാകുന്നതേയുള്ളൂ അതില് ഭയങ്കര ഒരു നല്ല ഇതായിരുന്നു ഞങ്ങൾ ഞാന് പയ നല്ല നല്ലതായിരുന്നു ഭയങ്കര കുഞ്ഞിലെ നല്ല രീതിയിലായിരുന്നു ഞാന് ഇരുന്നത് പിന്നെ ഇപ്പം പുതിയ ഫോട്ടോസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ എല്ലാവരുടെയും കൈയ്യിലി ഇപ്പോൾ ഫോണുണ്ട് അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാവുന്നതൊക്കെയേയുള്ളു അങ്ങോട്ടു തിരിഞ്ഞാലും ഇങ്ങോട്ടു തിരിഞ്ഞാലും ഒക്കെ നമ്മൾ ഫോട്ടോ എടുക്കും അതിപ്പം ഒരു പരിപാടിയില് നിന്നും അവിടെ നിന്നു നമ്മള് കുറേ ഫോട്ടോ എടുക്കും അടുത്ത പരിപാടിക്ക് വരുമ്പോൾ പിന്നെയും എടുക്കും അതുകഴിഞ്ഞ് ഗാലറിയില് കയറി നോക്കുമ്പോഴത്തേക്കും പണ്ടത്തെ ഫോട്ടോസ് കാണും അതു പിന്നെ ഡിലിറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് അതിന്റെ വില അറിയത്തില്ല പണ്ടെന്നു പറഞ്ഞാല് അങ്ങനെയൊന്നുമല്ലായിരുന്നു ക്യാമറ മാന് ഒരു ഫോട്ടോ എടുത്തു പിന്നെ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടായിരിക്കും ചിലപ്പോൾ ഫോട്ടോ എടുക്കുന്നത് എന്റെ കുഞ്ഞിലത്തെ ആദ്യത്തെ ഫോട്ടോസൊക്കെ ഏതോ സ്റ്റുഡിയോയില് ചെന്നിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നു പക്ഷെ അത് നമ്മള് ഫോണില് എടുക്കുന്ന സംഭവം എന്നു പറഞ്ഞാൽ എപ്പോഴും നിലനിൽക്കത്തൊന്നുമില്ല നമുക്ക് അതിന്റെ വില മനസ്സിലാകത്തില്ല നമ്മൾക്ക് ഇതുപോലെയുള്ള കൊ എത്ര കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ആയിരിക്കും നമ്മള്ക്ക് കൊ എന്തായിരുന്നു നമ്മുടെ കൈയില് ഉണ്ടായിരുന്നത് ഉള്ളതിൻ്റെ ആ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാകത്തുള്ളു അപ്പം അതു മനസ്സിലാക്കാന് വേണ്ടിയിട്ട് സാധിക്കത്തില്ല പിന്നെ ഒരുപാട് നല്ല മൊമെന്റ്സ് ഇങ്ങനെ ഷൂട്ട് ചെയ്തു വെച്ചിരിക്കുന്നതു കൊണ്ടു തന്നെ പിന്നെയും പിന്നെയും എനിക്കതു കാണാന് പറ്റും നമ്മുടെ ആല്ബം അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോസാണ് അവരെ കല്യാണത്തിന്റെ ഫോട്ടോയാണേല് പോലും നമ്മളുടെ കൈയ്യില് ആല്ബം ഒക്കെയുള്ളൂ അപ്പം അതിന്റെയൊക്കെ വാല്യൂ എന്നു പറഞ്ഞാല് വളരെ വലുതാണ്